ഡോക്ടർ അല്ലേ ഡോക്ടറേ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര പനി ആണേ പിന്നെ ഭയങ്കര തലവേദനയും ഉണ്ട് പനി ഉണ്ട് പിന്നെ മേലും വേദനയാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വോമിറ്റും ചെയ്യുന്നുണ്ട് പിന്നെ ഒന്നും കഴിക്കാൻ ഒന്നും പറ്റുന്നില്ല

ഒരു പാരസെറ്റാമോൾ കഴിഞ്ഞ പ്രാവശ്യം ആശുപത്രിയിൽ കാണിച്ചപ്പോൾ ഉള്ളത് ഒന്ന് ഉണ്ടായിരുന്നു ആ ഒറ്റ ഒന്നേ കഴിച്ചുള്ളൂ വേറെ ഒന്നും കഴിച്ചില്ല വേറെ ഗുളിക ആയിട്ട് ഒന്നും കഴിച്ചില്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഒന്നാമത് വായ്ക്ക് ഒന്നിനും രുചി ഇല്ല പിന്നെ ഒന്നും കഴിക്കാനും പറ്റുന്നില്ല എന്തെങ്കിലും കുറച്ച് കഴിച്ചാൽ തന്നെ വോമിറ്റിംഗ് ആണ് ആ ഇല്ല ആ ഇല്ല ഡോക്ടറേ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല രണ്ട് മൂന്ന് ദിവസം മുമ്പ് മഴ ആയിരുന്നു അപ്പം കുറച്ച് ചാറ്റൽ മഴ അധികം ഒന്നും ഇല്ല കുറച്ച് ഒന്ന് അധികം എന്ന് ഇല്ല കുറച്ച് പിന്നെ ഒന്ന് ചാറിയപ്പം കുറച്ച് കൊണ്ടു എന്നേ ഉള്ളൂ കുട എടുത്തിട്ട് ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് മഴ പെയ്തതാണ് ഇല്ല കാണിച്ചില്ല

അത് അറിയില്ല ഞാൻ ഒരു പിന്നെ പാരസെറ്റാമോൾ എടുത്ത് കഴിക്കുകയാണ് ചെയ്തത് വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഇല്ല ഞാൻ നോക്കിയില്ല പാരസെറ്റാമോൾ നമ്മൾ ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ കാണിച്ചതാണ് പാരസെറ്റാമോൾ എന്ന് തന്നെ അല്ലേ അതിനകത്ത് ഉള്ളത് ആ ഡോക്ടറേ പേരക്കുട്ടികൾ ഒക്കെ ഉണ്ട് ആ ഷുഗറും കൊളസ്ട്രോളും പ്രഷർ ഒക്കെ ഉണ്ട്

ഒരേ ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ചിട്ട് തന്നെയാണ് വാങ്ങുന്നത് ആ അവിടെ നിന്ന് അതായത് നമ്മൾ തീരുന്നതിന് അനുസരിച്ച് അവിടെ പോയി വാങ്ങി കാണിച്ച് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ഇല്ല ഇനി ഈ ആഴ് ഇനി ഈ വരുന്ന ആഴ്ച പോയി ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കുറേ കാലമായി എന്റെ വീട്ടിൽ വാർദ്ധക്യ സഹജമായ രോഗമൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം ഡോക്ടറേ നാളെ ഹോസ്പിറ്റലിൽ വരാം ഓക്കെ

ഓക്കെ ഡോക്ടറേ ഓക്കെ ഓക്കെ താങ്ക് യൂ ഡോക്ടർ